ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഒൻപത് പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി രണ്ട് പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഒന്ന് ഏഴ് ഒൻപത് രണ്ടായിരത്തി മൂന്ന് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനഞ്ച്